ഇപ്പോൾ മലയാളഭാഷയെ സംരക്ഷിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും രീതിയിൽ ഇപ്പോൾ നമ്മുടെ സർക്കാര് മെയിനായിട്ട് ഇമ്പ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ് വരെ നിർബന്ധമായി മലയാളഭാഷ പഠിക്കണം അടിസ്ഥാന ഭാഷ അതായത് നമ്മുടെ മാതൃഭാഷ പഠിച്ചാൽ മാത്രമേ സർക്കാർ ജോലി ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഒരു ഇമ്പ്ലിമെന്റേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഒരു ഉപകാരമാണ് കാരണം എന്താ വച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ കാലഘട്ടത്തില് സർക്കാർ ജോലി അല്ലെങ്കിൽ അങ്ങനത്തെ ജോലികള് പ്രിഫർ ചെയ്യണതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ മിക്കവാറും മലയാളഭാഷ കുട്ടികളെ പഠിപ്പിക്കാനും അതിലൂടെ മലയാള ഭാഷയുടെ വളർച്ച അല്ലെങ്കിൽ എന്താ പറയുക ചൂഷണം നമുക്കു തടയാനും പറ്റും പിന്നെ മിക്ക സംഘടനകളുടെ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ മലയാളത്തിന് കൂടുതൽ പ്രാതിനിധ്യം നൽകി മലയാളഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഭാഷാദിനത്തിന് അതായത് നമ്മുടെ കേരളപ്പിറവി ദിനത്തിന് പണ്ടത്തേക്കാട്ടിലും ഒരു എന്താ പറയുക കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രാമുഖ്യം നൽകുന്നുണ്ട്